ഹലോ ഡോക്ടർ എനിക്ക് കൊറോണ ആണ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര പനി ആയിരുന്നു പിന്നെ ജലദോഷം തലവേദന അങ്ങനെത്തൊക്കെയുണ്ട് രണ്ട് ദിവസായി യെസ് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ടിനുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കിള്ളത് അറിഞ്ഞില്ല അപ്പം എനിക്കും പിന്നെയാണ് അവർ പോയി ടെസ്റ്റ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞപ്പോ ആണ് എനിക്കിങ്ങനെ വൈകുന്നേരം ആയപ്പോ ഭയങ്കര പനി ജലദോഷം അപ്പൊ അങ്ങനെ ആണ് പോയി ടെസ്റ്റ് ചെയ്തപ്പോ എനിക്കും പോസിറ്റീവ് കാണിച്ചു യെസ് അതെ മെഡിസിൻ കാണിച്ചപ്പോൾ അവര് പാരാസെറ്റമോൾ മാത്രേ തന്നുള്ളൂ പിന്നെ പുറത്തിറങ്ങണ്ട അങ്ങനൊക്കെ പറഞ്ഞു പിന്നേം ഭയങ്കര തലവേദനേം പനീം കൂടിയപ്പോ ആണ് കാണിക്കാൻ വന്നത് യെസ് യെസ് വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് എനിക്കൊരു മോനുണ്ട് ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ പെങ്ങളുണ്ട്

ഓക്കേ ഓക്കേ ഞാനൊരു മീറ്റർ അകലം പാലിച്ചിട്ടാണ് അവരോടെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും അവരും അങ്ങനെ തന്നെ ആണ് ആർക്കും ഇപ്പഴും

ഓക്കേ മാം ഓക്കേ ഓക്കേ